ഹലോ ആടാ നീയെവിടെയാ ഉള്ളത് ആണല്ലേ അതെ ഞാൻ കോഴിക്കോട് ഉണ്ട് അപ്പം നമുക്ക് നല്ലൊരു കുറച്ച് പാർട്ടി വരുന്നുണ്ട് അതായത് നമ്മളെ റിസോർട്ടിലേക്ക് കുറച്ച് പാർട്ടി വരുന്നുണ്ട് അപ്പം അത്യാവശ്യം ക്യാഷ് ടീം ആണ് അപ്പം അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ പിന്നെ എടാ കോഴിക്കോട് നല്ലൊരു ഹോട്ടല് പറഞ്ഞുതരുമോ ഹോട്ടലോ റെസ്റ്റോറന്റോ എങ്ങനെയാണേലും കുഴപ്പമില്ല റേറ്റൊന്നും വിഷയമല്ല അത്യാവശ്യം നല്ല ഫുഡായിരിക്കണം ഹെവീ ഫുഡായിരിക്കണം നമുക്ക് കമ്മീഷൻ ഒക്കെ കിട്ടും അപ്പോൾ നല്ല ഹെവീ ഫുഡായിരിക്കണം അപ്പോൾ എവിടെയാടാ ഉണ്ടാവുക ടോപ്ഫോമാ അതെവിടെ ആയിട്ടാ ടൌണിൽ തന്നയാ നീയൊന്ന് ലൊക്കേഷനൊന്ന് അയച്ചിടുമോ കാരണം അവർ നാളെ വരുന്ന പാർട്ടിയാ അപ്പം അവർക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് എല്ലാ ഫുഡും അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പം അതെല്ലം കൂടെ ഒരു കടയിൽ നിന്നുതന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെപ്പോയി അതായത് ഫസ്റ്റ് ഡെയ്ന് അവിടെപ്പോയിട്ട് പിന്നെ അവരോട് ഓർഡറ് പറഞ്ഞാൽ മതിയല്ലോ നല്ല ഫുഡാണെങ്കിൽ ആ അതിന് വേണ്ടിയാണ് കുഴപ്പമില്ലാല്ലേ എന്നാൽ ഞാൻ എന്നാൽ നീ അവിടുത്തെ നമ്പറൊന്ന് ഇട്ട് കേട്ടോ ഞാൻ ആ ഓക്കെ ഓക്കെടാ ആ ഓക്കെ